ആ സാറേ ഞാൻ വിളിച്ചത് നമുക്ക് നമ്മുടെ ടീമിനെ ഒന്നുകൂടി കുറച്ചൊന്നു ഡെവലപ്പ് ആക്കിയെടുക്കണ്ടേ സാറേ ഓക്കെ ഓക്കെ അപ്പോൾ സാറേ ഞാനിപ്പം പറയുന്നു എന്ന് വച്ചാൽ നമ്മുടെയിപ്പം നിലവിലുള്ള പ്ലേയെർസിനൊക്കെ അവർക്കൊരു എന്താ പറയുക കുറച്ച് ഒരു സെക്കൻ്റ് ഹാഫ് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് സ്റ്റാമിനയൊക്കെ കുറഞ്ഞു വരുന്നൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ നമ്മുടെ പിള്ളാർക്ക് കുറച്ചുകൂടി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ടും അവർക്ക് കുറച്ചുകൂടി എനർജി കിട്ടാനായിട്ടും നമ്മളിപ്പോൾ എന്താ സാറേ കൂടുതലായിട്ട് ചെയ്തുകൊടുക്കേണ്ടത് അവർക്ക് വേണ്ടി ഓ സാർ വച്ചാൽ അവർ എന്താ പറയുക ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ അവർ വളരെ ഭയങ്കര മികച്ചൊരു കളിയാണ് അവർ പുറത്തെടുക്കുന്നത് പക്ഷെ അത് സെക്കൻ്റ് ഹാഫ് കഴിയുമ്പോഴത്തേക്കും ശരിയാണ് ആ ഒരു ആദ്യത്തെ ഒരു ഹാഫിൻ്റെ ആ ഒരു മടുപ്പ് അവർക്കെന്തായാലും ഉണ്ടാവും പക്ഷെ എന്തായാലും നമുക്ക് അങ്ങനെയുള്ള പ്ലെയെർസ് അല്ലായിരുന്നു പക്ഷേ അവർക്കിപ്പം കുറച്ചുനാൾ കൊണ്ട് ഈ അടുപ്പിച്ചുള്ള കളികൾ കൊണ്ടൊക്കെയായിരിക്കാം അവർക്ക് ഈ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു സ്റ്റാമിന ഒരു കുറഞ്ഞു വരുന്ന രീതിയിലേയ്ക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ അതൊന്നു ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഓക്കേ ഓക്കേ അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ സാറേ ഇപ്പോൾ നമ്മളെ ടീമിന് നമുക്ക് നമ്മുടെ ഫോർമേഷന് അതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ബാക്ക് അതുപോലുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ മാറ്റത്തില്ലേ ഈ യങ്ങ് പ്ലെയേഴ്സിനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അവരെ നമുക്കിതിനെ രണ്ടുംകൂടി മിക്സ് ചെയ്ത് കളിപ്പിച്ചാലോ ഓക്കേ അപ്പോൾ സർ പിന്നെ അതല്ല കാരണമെന്താ ഓക്കേ അപ്പോൾ ആ ഓക്കേ സർ അപ്പോൾ ഈ മീറ്റിങ്ങിൽ നമുക്ക് കൂടുതൽ പ്ലെയേഴ്സിനേയുംകൂടി ഉൾപ്പെടുത്തി നമുക്ക് ആ മീറ്റിംഗ് വയ്ക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഒരു എനർജി കിട്ടാനായിട്ട് അല്ലേ അവർക്ക് പുതിയ കാര്യങ്ങൾ അറിയാനായിട്ടും ഒരെളുപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അവരേയും കൂടി കൂട്ടി നമുക്ക് ആ മീറ്റപ്പ് അറേഞ്ച് ചെയ്താലോ ഓക്കേ സാറേ അപ്പോൾ ഇതൊന്നറിയാൻ വേണ്ടിയായിരുന്നു ഞാൻ വിളിച്ചത് താങ്ക് യു സാർ ഓക്കേ ഓക്കേ